നമ്മുടെയൊക്കെ നാട്ടിൽ വിനോദഞ്ചാരികൾ വരുമ്പോൾ തീർച്ചയായിട്ടും അവർ പ്ലെയിൻ ഇറങ്ങി നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതലും ഉപയോഗിക്കുന്നത് ടാക്സികളാണ് ടാക്സികളാണവർ കൂടുതലും യാത്ര നടത്താൻ കാരണം ടാക്സികൾ തീർച്ചയായും സ്വകാര്യതയും അവർക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലാണ് ടാക്സികൾ ഉപയോഗിക്കാൻ സാധിക്കുന്നു അതുപോലെതന്നെ ടാക്സി മറ്റു ഗതാഗതങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെയുണ്ട് പരമ്പരാഗത വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൽ താല്പര്യമുള്ള ആൾക്കാരൊക്കെയുണ്ട് തീർച്ചായായിട്ടും ഈ വിദേശികൾ വരുമ്പോൾ അവരെല്ലാ കാര്യങ്ങളും വീക്ഷിക്കും നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തല്ലേ നമ്മുടെ രാജ്യത്തുള്ള സൗകര്യങ്ങളെക്കുറിച്ച് അവർ വീക്ഷിക്കും അവർ അവരുടെ രാജ്യങ്ങളായിട്ട് താരതമ്യം ചെയ്യും അപ്പോൾ അവരുടെ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരിക്കലും നമ്മുടെ ഇത് ഒരിക്കലും കുറഞ്ഞ് കാണാൻ അല്ലെങ്കിൽ കുറച്ചിൽ പോലെ അവർക്ക് തോന്നരുത് നമുക്കെല്ലാ സൗകര്യങ്ങളും അതുകൊണ്ട് ഉറപ്പായിട്ടും ഉണ്ടാവണം ഇവർ ചിലപ്പം ഈ വാഹന സൗകര്യം അല്ലെങ്കിൽ എന്താണ് നേരെന്നോ ഈ ഗതാഗത സൗകര്യം വലിയ രീതിയിൽ വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് കാരണം ഈ വിനോദസഞ്ചാരികൾ വരുമ്പോൾ അവർക്ക് അവ ഈ നഗരങ്ങളിൽ മാത്രമല്ല അവരവരുടെ സമയം ചിലവഴിക്കുന്നത് അവർ കുറച്ചുംകൂടി ഉൾപ്രദേശങ്ങളെ അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലും വനമേഖലകളിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പം അങ്ങോട്ടേക്കുള്ള ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അത് തീർച്ചയായിട്ടും സർക്കാർ തലത്തിലാണെങ്കിലും മറ്റു സ്വകാര്യ തലത്തിലൊക്കെയാണെങ്കിൽ നമുക്കതുറപ്പ് വരുത്താൻ തീർച്ചയായിട്ടും അത് ടാക്സികളൊക്കെ തന്നെയായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്ന് ഇപ്പോൾ ചില സ്ഥലങ്ങളൊക്കെ ട്രെയിൻ വഴിയൊക്കെയേ പോവാൻ സാധിക്കുള്ളു ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പരമ്പരാഗതമായിട്ടുള്ള വണ്ടികളിലൊക്കെയായിരിക്കും പോവുന്നത് തീർച്ചയായിട്ടും വിനോദസഞ്ചാരികളെ സംബന്ധിച്ചെടുത്തോളം വളരെയധികം കൗതുകമാണപ്പം അവരെയൊക്കെ ഒന്ന് നല്ല രീതിയിലവരെ അവർക്ക് ഒരു സംരക്ഷണം നൽകാമെന്ന രീതിയിൽ നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഏജൻസിയെ പ്രധിനിധീകരിച്ച് ഒരാളുണ്ടാവണം അത് തീർച്ചയായിട്ടും അവരുടെ സുരക്ഷയെ മുൻകൂട്ടിയും കൂടിയാണ് നമ്മളിത് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അതുപോലെതന്നെ നമ്മുടെ അതിന്റെ സൗകര്യങ്ങളൊക്കെ താങ്ങാവുന്ന രീതിയിൽ തന്നെയാണ് കാരണം ഭയങ്കര രീതിയുള്ള റെയ്റ്റും കാര്യങ്ങളൊന്നും വലിയ രീതിയിലുണ്ടാവത്തില്ല അതൊക്കെ കാരണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയനുസരിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയനുസരിച്ച് നമുക്കതിൻ്റെതായിട്ടുള്ള ചുറ്റുപാടിൽ മാത്രമേ നമ്മളുടെ ആവൊരു ചാർജൊക്കെ ഈടാക്കുള്ളൂ അപ്പോൾ അത് തീർച്ചയായിട്ടും വിനോദ സഞ്ചാരികൾ ആണെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ അത് വലിയൊരു പ്രശ്നമായിട്ട് നമ്മളത് തോന്നിപ്പിക്കുന്നില്ല തീർച്ചയായിട്ടും പിന്നെ അത് ഗതാഗതം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്